ഞാൻ ഒരു ദിവസം ഫാൻസിയിൽ കയറി ഒരു മാല വാങ്ങി അഞ്ഞൂറ് രൂപയോളം വില കൊടുത്തു മാല നല്ല ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വാങ്ങിയത് പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടു വന്നു പിറ്റേ ദിവസം ഞാൻ അത് ഇടാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു കല്ല് ചാടിപ്പോയിട്ടുണ്ട് നല്ല ആ ഒരു റേറ്റ് കൊടുത്ത് വാങ്ങിയതാണ് പക്ഷെ അത് ഇടാൻ നേരം അതുപോലെ തന്നെ അത് ഇട്ട സമയത്ത് ഞാൻ വീട്ടിൽ വന്ന സമയം ഊരിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ ആ നെക്ലേയ്സിൻ്റെ പാട് ഒരു കറുത്ത പാട് വന്നു ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ആ ഒരു ഫങ്ഷന് ഞാൻ ഇട്ട സമയത്ത് ഇതിന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോൾ അഞ്ഞൂറു രൂപയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമാണ് ഇത് അഞ്ഞൂർ രൂപക്ക് അത്രയൊന്നും ഇല്ല നൂറ് രൂപൻ്റെ വിലയെ ഉള്ളൂ അവർ നിന്നെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പറഞ്ഞത് അപ്പം ഞാൻ ആകെ അ ഈ ഒരു മാല വാങ്ങി പെട്ടല്ലോ എന്ന് ആലോചിച്ചു പിന്നെ അതുപോലെ തന്നെ എൻ്റെ കല്ലുകളൊക്കെ പുറത്ത് ഇളകിപ്പോരാൻ തുടങ്ങി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡ്രെസ്സിനും ഇടുമ്പോൾ ഇടാൻ പറഞ്ഞിട്ടാണ് അത് വാങ്ങിയത് ഞാൻ പക്ഷെ അത് എല്ലാ ഡ്രെസ്സിനും മാച്ചിങ്ങായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മാല എനിക്ക് ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആയി ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു അപ്പോൾ അതേപോലത്തെ മാല വാങ്ങിയ ആളുകൾടേയ്നൂ പക്ഷെ അത് നല്ലാതാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് പക്ഷെ ഇത് ഒരു ബാഡ് മാല ആയിരുന്നു അത് എനിക്ക് ഒരുപാട് കഴുത്തിലൊക്കെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ആണ് ആ മാല ഇട്ട സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ മാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല